ഞാൻ ഒരു പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മോഡലിനെക്കുറിച്ചും പ്രൈസിനെക്കുറിച്ചും ഒന്ന് പറഞ്ഞുതരുമോ ഹ്യുണ്ടായ് അഞ്ച് ലക്ഷത്തിനുഉള്ള ബഡ്ജറ്റ് ആണ് കളറോ ഏതൊക്കെ കളർ ഉണ്ടാവും

ആ എനിക്ക് ഡാർക്ക് കളർ മതി ആ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്

ടാറ്റയുടെ വണ്ടികളോ രണ്ടു ലക്ഷം ആണെങ്കിലും കുഴപ്പമില്ല ആ വേറെ കമ്പനികളോ

ഓൾട്ടോ ഉണ്ടാവുമോ ഓൾട്ടോ ഓൾട്ടോ

വണ്ടിക്ക് അകത്ത് എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും

എ സി മ്യൂസിക് പ്ലെയർ മ്യൂസിക് സിസ്റ്റം അത് എല്ലാം ഉണ്ടാവുമോ

എട്ട് ഓൾട്ടോ എടുത്താൽ അതിൽ ഏതെല്ലാം കളർ കിട്ടും എനിക്ക് വൈറ്റ് ആണ് ഞാൻ സെലക്റ്റ് ചെയ്യാൻ പോണത് എന്നാൽ നാളെ വരാം താങ്ക് യൂ